റേഡിയോ വാർത്തകൾ ഇന്നത്തെ സമൂഹത്തിൽ നാം ഏറ്റവും അവോയ്ഡ് ചെയ്യുന്നൊരു കാര്യംതന്നെയാണ് റേഡിയോ വാർത്തകൾ നാം ഒഴിവാക്കിയെങ്കിൽ മാത്രം ഒഴുവാക്കപ്പെട്ടിരിക്കുന്നൊരു കാലമാണിന്ന് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് സമൂഹമാധ്യങ്ങളുടെ വരവോടുകൂടി റേഡിയോ വാർത്തകൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു പല പല ധാരാളം ചാനകലുകൾ നമ്മളുടെ റേഡിയോയിലുണ്ടെങ്കിൽത്തന്നെയും ഇന്നത്തെ സമൂഹത്തിന് പല ആളുകൾക്കും ഏതേതു ചാനലുകളാണ് ഉള്ളതെന്ന് പോലും നമുക്ക് വ്യക്തമാകാത്തൊരവസ്ഥയാണ് ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി പഴയ തലമുറയിലെ ജനങ്ങളെപ്പോലെതന്നെ ഇപ്പോഴത്തേയും ആളുകൾ റേഡിയോ ഉപയോഗിക്കണമെന്നതാണ് എൻറ്റെ അഭിപ്രായം റേഡിയോ വാർത്ത ഉപയോഗിക്കുന്നതിലൂടെ സമൂഹമാധ്യമങ്ങൾ എല്ലാ മേഖലയിലേയും ജനങ്ങളുടെ മാറ്റങ്ങളെപ്പറ്റി പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു കൂടാതെ ഇത്തരം മാറ്റങ്ങളിലൂടെ നാം സമൂഹത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങളെ മനസ്സിലാക്കുന്നതിനും വരുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും നമുക്ക് സാധിക്കുന്നു റേഡിയോ വാർത്തകൾ കേൾക്കുകയെന്ന് റേഡിയോ വാർത്തകൾ കേൾക്കുകയെന്നത് ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ആശ്വാസമായിരുന്നു ഇതിലൂടെ ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിയുന്നതിനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെന്തെന്ന് തിരിച്ചറിയുന്നതിനുമെല്ലാം തന്നെ റേഡിയോ വാർത്തകളൊരുപാട് സഹായിച്ചിരുന്നു ഇത്തരം വാർത്തകളിലൂടെ നാം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും സമൂഹമാധ്യമങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും രാഷ്ട്രീയം സാമൂഹികം ശാസ്ത്രീയമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നാം തിരിച്ചറിയുന്നത് റേഡിയോ വാർത്തകളിലൂടെയായിരുന്നു ധാരാളം ചാനലുകൾ റേഡിയോ വാർത്തകളിലുണ്ടെങ്കിൽത്തന്നെയും നാം ഒന്നും തന്നെയും ഇപ്പോഴും പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലായെന്നതാണ് വാസ്തവം ഇത്തരം ഇപ്പോഴത്തെ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് റേഡിയോ വാർത്തകളെന്ന് പറയുന്നത് വളരെയധികം സുപരിചിതമായൊരു കാര്യമല്ല എന്നാൽത്തന്നെ പഴയ ജനറേഷനിലെ ആളുകൾക്ക് റേഡിയോ വാർത്തകൾ വളരെയധികം സുപരിചിതമാണ് പണ്ടുകാലങ്ങളിൽ ഗ്രാൻറ്റ് ഫാദേഴ്സ് ആൻറ്റ് മദേഴ്സെല്ലാം റേഡിയോ വാർത്തകൾ യൂസ് ചെയ്തിരുന്നത് ഈ കൃഷി വാർത്തകളും മറ്റും അറിയുന്നതിനു വേണ്ടിയിട്ടായിരുന്നു ഇത്തരം വാർത്തകൾ നാം കേൾക്കുന്നതിലൂടെ കൃഷി കാര്യങ്ങളെപ്പറ്റിയും ഇന്ന് അവർക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു കൂടാതെ ഇത്തരം വാർത്തകൾ കേൾക്കുന്നതിലൂടെ അതിൻറ്റെയൊരു ഇമാജിനേഷൻ നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരികയും നാം അത് പൂർണ്ണമായും ചിന്തിച്ച് എന്താണ് ഏതാണ് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു ഇത്തരം കാര്യങ്ങളുടെയൊരു തിരിച്ചറിവാണ് റേഡിയോ വാർത്തകളിലൂടെ നാം കഴിക്ക് കാ കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ പുതിയ സമൂഹ മാധ്യമങ്ങളുടെ വരവോടുകൂടി റേഡിയോ വാർത്തകളുടെ പ്രാധാന്യം വളരെയധികം കുറഞ്ഞുവരികയാണ് ഇതിലൂടെ നാം സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങലും മറ്റു പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റ് മാധ്യമങ്ങളിലൂടെയാണ് മറ്റ് സമൂഹമാധ്യമങ്ങളിലൂടെത്തന്നെയാണ് പണ്ടുകാലത്ത് മറ്റു സമൂഹമാധ്യമങ്ങൾ ഒന്നുംതന്നെ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ജനങ്ങൾ കാത്തിരുന്ന് കേൾക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മുടെ സമൂഹമാധ്യമങ്ങളിലുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഇത് അന്നത്തെക്കാലത്തവർക്ക് വേറെ എൻറ്റെർട്ടെയ്ൻമെന്റുകളൊന്നും തന്നെയില്ല ത്തത് കൊണ്ടുതന്നെ അവർ പൂർണ്ണമായും ഇത്തരം വാർത്തകൾ കേൾക്കാൻ താൽപ്പര്യപ്പെട്ടിരുന്നു എത്ര സമയം കൊടുത്താലും അവരിത്തരം വാർത്തകൾ പൂർണ്ണമായും കേട്ട് തീർക്കാനവർ താൽപ്പര്യപ്പെട്ടിരുന്നു എന്തെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇത്തരം വാർത്തകൾ കേൾക്കുന്നതിലൂടെ മാത്രമേ അവർ സമൂഹമെന്തെന്നും സമൂഹത്തിലെ പ്രശ്നങ്ങളെന്തെന്നും സമൂഹത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തെന്നുമുള്ളത് തിരിച്ചറിയാൻ അവർക്ക് കഴിയുകയുള്ളായിരുന്നു ഒക്കെ ഇത് സമൂഹത്തിന്റെ ഒരു നാഡീഞരമ്പായി വാണിരുന്ന ഒരു കാലം റേഡിയോയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെക്കാലത്ത് റേഡിയോയ്ക്ക് ധാരാളം മാറ്റങ്ങൾ വരുകയും ഇതിലൂടെ റേഡിയോ എന്തെന്ന് റേഡിയോയിലെ മാറ്റങ്ങളെന്തെന്ന് നമ്മുടെയിന്നത്തെ കുട്ടികൾക്ക് പലർക്കും തന്നെ തിരിച്ചറിഞ്ഞുകൂടാ ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് റേഡിയോയുടെ മാറ്റത്തിന് വളരെയധികം കാരണമായി ഇതിലൂടെയാണ് നാം പ്രശ്നങ്ങൾ പല പല പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും മറ്റ് പല മാധ്യമങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഇതാണ് റേഡിയോയുടെ വരവ് കുറയുന്നതിന് കാരണമായി എന്നാലിപ്പോൾ വീണ്ടും പുതിയ ജനറേഷന്റെ വരവോടുകൂടി ന്യൂജെൻ റേഡിയോകളുടെ വരവ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് പലതരം ചാനലുകളും മറ്റും ഈ ന്യൂജെൻ റേഡിയോയിൽ ഉണ്ട് എന്നതാണ് വാസ്തവം ഇത് സമൂഹത്തിന്റെ പല എൻറ്റർട്ടേയ്ൻമെൻറ്റ് സിനിമ എന്നീ കാര്യങ്ങളെപ്പറ്റി ജനങ്ങളിലേക്കെത്തിക്കുന്നതിന് ഈ റേഡിയോ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇതിലൂടെ സമൂഹത്തിന് വളരെയധികം മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് റേഡിയോയുടെ ഉപയോഗത്തിലോടുകൂടി പണ്ടുകാലങ്ങളിൽ റേഡിയോ പാട്ടുകൾ മാത്രം കേട്ടിരുന്നൊരു കാലം നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിരുന്നു ഇത് അന്നത്തെക്കാലത്ത് റേഡിയോയുടെ വളർച്ചക്ക് വളരെയധികം സഹായകമായി ഇത് ഇതിലൂടെയാണ് റേഡിയോയുടെ വളർച്ച ആരംഭിക്കുന്നത് എന്നുതന്നെ നമുക്ക് പറയാം ഇത്തരം വളർച്ചയിലൂടെയാണ് റേഡിയോ ഇത്രയധികം ജനസമ്മിതി നേടിയ ഒരു മാധ്യമമായി മാറിയത് ഇത് സമൂഹത്തിനെ എന്നന്നേക്കും